പാട്ട് പാടുമ്പോൾ ശബ്ദത്തിൽ തകരാറ് വരുന്നതും തെറ്റുകൾ വരുന്നതും ഒക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരാം സംസാരത്തിന് പ്രശ്നം വരാം സൗണ്ടിന് പ്രശ്നം വരാം അത് പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ വരുമ്പം വരുന്നതാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ഗായികയോ ഗായകനോ ആണെങ്കിൽ നമ്മൾ നമ്മുടെ സൗണ്ടും എല്ലാം വളരെ സൂക്ഷിച്ച് കണ്ടും വയ്ക്കേണ്ട ഒരു സാധനമാണ് കാരണം അതാണ് നമ്മൾ നമ്മൾ അതിൻ അതാണ് നമ്മൾ അതിൽ ആശ്രയിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പാട്ടിനെ ഇഷ്ടപ്പെടുന്നു അതിന് അത്രത്തോളം വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ശബ്ദം അപ്പോൾ ഇപ്പം നമ്മുടെ എപ്പോഴും സൗണ്ടിൽ എന്തെങ്കിലും അടയ്ക്കുന്ന ശബ്ദം അടയ്ക്കുന്ന ആളാണെങ്കിൽ ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുന്നത് നിർത്ത് നിർത്തലാക്കണം പിന്നെ അലറുന്നതും ഒന്നും നമ്മുടെ സൗണ്ടിന് അത്ര നല്ലതല്ല അത്യാവശ്യം വരുമ്പം മാത്രം അലർച്ച ആവാം പക്ഷേ അല്ലാതെ നമ്മൾ ഒരുപാട് നമ്മുടെ ശബ്ദത്തിന് അങ്ങനെ എക്സേർട്ട് ചെയ്യാനോ ഒന്നും പാടില്ല ഇങ്ങനെ തണുത്ത വെള്ളം ഐസ്ക്രീം അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അത്രയ്ക്ക് കൊതിയായിട്ട് കഴിക്കണം എന്ന് തോന്നുന്നെങ്കിൽ കഴിക്കാം പിന്നെ അതിന് ശേഷം ചൂട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഐസ്ക്രീം അലിയിച്ച് കഴിക്കാൻ നോക്കുക ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദം സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും പിന്നെ അത് കൂടാതെ നമ്മൾ എപ്പോഴും എന്നും റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്റ്റീസ് ചെയ്യണം നമ്മൾ ഇങ്ങനെ പാട്ട് പ്രാക്റ്റീസ് ചെയ്ത് നമ്മുടെ ശബ്ദം എക്സർസൈസ് വെച്ച് ഒരുപാട് ശബ്ദത്തിനായിട്ട് എക്സർസൈസുകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ടിന് അത്രയും ഒരു ഒരു ക്ഷീണമോ അല്ലാതെ തെറ്റോ അങ്ങനെയൊന്നും വരുന്ന ചാൻസസ് വളരെ കുറവായിരിക്കും നമ്മൾ നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക എല്ലാ ഏതൊരു കാര്യം ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തെറ്റ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രാക്റ്റീസ് ചെയ്യാതെ വെറുതെ നമ്മൾ തോന്നുമ്പോൾ മാത്രം പാടുക എന്നുവെച്ചാൽ അങ്ങനെ നമുക്ക് തെറ്റുകൾ അപ്പോൾ ഒരുപാട് വരാം പക്ഷേ നമ്മൾ ഒരുപാട് പ്രാക്റ്റീസ് ചെയ്ത് അതിന് വേണ്ടി സമയം ചിലവഴിച്ചാൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും